അതൊക്കെ ഒരു കച്ചവടമായി ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇടയ്ക്ക് വച്ചിങ്ങനെ ലൗ ജിഹാദ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതായത് മറ്റു മതങ്ങളിലുള്ള പെൺ പിള്ളേരെ മുസ്ലിം മതത്തിലോട്ട് കൊണ്ടുവരുന്നതിനുവേണ്ടി ഉള്ള ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ആ ഇടയ്ക്ക് ഒത്തിരി വീഡിയോസൊക്കെ ഇങ്ങനെ വന്നിരുന്നു അതിൽ ഞാൻ ഒരു ഉസ്താദ് പള്ളിയിലുള്ള ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടിരിക്കുന്നു അത് ശരിയാണോ ഇല്ലയോയെന്നൊന്നും നമുക്കറിയില്ല അങ്ങനെയൊരു വീഡിയോക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ നന്നായിട്ട് പെരുമാറി അവരെ എങ്ങനേയും നമ്മുടെ ഇതിലോട്ട് ആക്കണം ആൺപിള്ളേരൊക്കെ ഇങ്ങനെ നടന്നാൽ പോരാ നല്ല വേഷവും എല്ലാം ധരിച്ച് പെൺപിള്ളേർക്ക് ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം അവർക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള തരത്തിൽ പോണമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോയൊക്കെ അന്ന് ആ പ്രശ്നം നടന്നപ്പം കണ്ടിരുന്നു പക്ഷേ അത് അത് സത്യമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല ആരെങ്കിലും ഫേക്കായിട്ട് ഉണ്ടാക്കി ഇട്ടിരിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ ഒരെണ്ണം കണ്ടു അങ്ങനെയുണ്ടെങ്കിൽ അത് തെറ്റാണ് എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട് ഒരു മതത്തിൽ നിന്നൊരു മതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരേ കബളിപ്പിച്ച് ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല പിന്നെ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഒരുപാട് മതപരിവർത്തനം നടത്തുന്നു എന്നു നമ്മൾ കേൾക്കുന്നുണ്ട് അത് ഹിന്ദുമതത്തിൽ നിന്നും ഒരുപാട് പേർ ക്രിസ്ത്യൻ മതത്തിലോട്ട് കൊണ്ടുപോകുന്നു എന്നും കേൾക്കുന്നു അതും അങ്ങനെ മതപരിവർത്തനം നടത്തി പ്രചരിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു ഇതായിട്ട് മതത്തിനെ തോന്നുന്നില്ല ഹിന്ദുമതത്തിലങ്ങനെ വേറൊരു മതത്തിലുള്ളവരെ എന്തെങ്കിലും പറഞ്ഞ് ഹിന്ദു മതത്തിലോട്ട് ആക്കുന്നതായിട്ടൊന്നും ഇതുവരെയും കേട്ടിട്ടില്ല പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ മതങ്ങൾ അവരവരുടെ മതങ്ങളിൽ വിശ്വസിച്ച് അവരവർ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് പിന്നെ മതപരിവർത്തനം നടത്തേണ്ട ആവശ്യമില്ല വളരെ അവരെ കബളിപ്പിച്ചും ഒന്നും ചെയ്യാനും പാടില്ല എന്നാണെൻ്റെ അഭിപ്രായം എല്ലാവർക്കും അവരുടേതായ മതസ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യയിലുണ്ട് മറ്റ് ഒരു രാജ്യങ്ങളിലും ഇല്ലെങ്കിലും ഇന്ത്യയിലത് ഉണ്ട്